ആ ഇപ്പം ഈ സീസണായതു കൊണ്ടു വരുന്നുണ്ട് ആ കുഴപ്പമില്ല നല്ല ചക്കയൊക്കെ വരുന്നുണ്ട് ആ ആ പച്ചയുണ്ട് പഴമുണ്ട് നല്ല മധുരമുള്ള ആ അങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ആ അത് എങ്ങോട്ടാണ് ആ എങ്ങോട്ട് ഞങ്ങൾ കയറ്റി വിടണോ വണ്ടിക്ക് വിടണോ അല്ലേ വണ്ടി വരുമോ ആ കുഴപ്പമില്ല നെല്ലിക്കക്ക് ഇരു ഇരുന്നൂറ്റൻപത് രൂപ ഒരു കിലോയാണോ വേണ്ടത് ഒരു കിലോയ്ക്ക് അറുപത് രൂപ

ആ നൂറ്റി ഇരുപത് രൂപ

നെല്ലിക്കക്ക് എങ്ങനെയാണ് വെച്ചാൽ പക്ഷേ നമ്മളങ്ങനെ നല്ല സാധനങ്ങൾ കൊടുക്കുന്നതു കൊണ്ടങ്ങനെ റിഡക്ഷൻ കൊടുക്കാറില്ല നമുക്കതൊന്നും മുതലാകുകയില്ല എന്നാ എന്നു വെച്ചാൽ വണ്ടി നമ്മളേത് നമ്മൾ അങ്ങനെ നല്ല ഫ്രഷായ സാധനങ്ങൾ വരുമ്പം നമ്മളങ്ങനെ കൊടുക്കുകയില്ല ആ ഇല്ല ഒരു കേടുമില്ല അ ചക്ക നമുക്ക് ചക്ക എൺപതു രൂപ ആണ് കിലോയ്ക്ക് ആ ഒരു കിലോ എൺപത് രൂപ

ആ ചക്കക്ക് വേണമെങ്കിൽ വില കുറച്ചു തരാം വില കുറച്ചല്ലാ ഇത്തിരി കുറച്ചു തരാം നമ്മുടെ റൂട്ട് മലവാടികളുണ്ട് ഒരു നമുക്കൊരറുപത് രൂപയ്ക്ക് തരാം ഒരു കിലോയ്ക്ക് ഒരു ചക്ക ഒരു ഒരു ചക്കക്കൊരു പത്ത് കിലോ വരും ചെറിയതുണ്ട് തൂക്കമാകുമ്പം അത്രയും ചെറുതാകുമ്പം അത്രയും ചൊളക്കൊക്കെത്ര മുഴുപ്പ് കുറവായിരിക്കും എന്നാലും മുഴുപ്പില്ലയെന്നു നോക്കാം ആ അ കുഴപ്പമില്ലത് എങ്ങനെയാണ് വെച്ചാൽ അ അതു കുഴപ്പമില്ലാ ആ കുഴപ്പമില്ലാ ആ ഏത്തപ്പഴവും നല്ല ടേസ്റ്റാണ് നല്ല ഇതാണ് വലിയ രാസവളമൊന്നുമിടാത്ത പഴുത്തു വരുന്നതേയുള്ളൂ നമ്മൾ നല്ല ഫ്രഷ് സാധനങ്ങൾ ഇതേ ഇന്നലെ കൊണ്ടു വന്ന് ലോഡ് വന്നിങ്ങിറക്കിയതേയുളളൂ

ആ കുഴപ്പമില്ലാത്തുള്ളത് ആ കുനിയന്മാരല്ലേ കുനിയന്മാരല്ലേ എനിക്കറിയാമല്ലോ നമ്മളന്നു വാങ്ങിച്ചത് എന്തെല്ലാം വെള്ളമൊന്നും ഞങ്ങളങ്ങനെ ഉപയോഗിക്കുകയില്ല അഞ്ച് കിലോ അല്ലേ ആ കുഴപ്പമില്ല ആ ഓറഞ്ച് മുന്ത് മുന്തിരിയൊക്കെയുണ്ട് ഓറഞ്ച് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ വന്നിട്ടുണ്ട് പൈനാപ്പിൾ ഇന്നലെ നല്ല പൈനാപ്പിൾ ആ പൈനാപ്പിളിനിത്രക്ക് വില പിന്നെ ഇതിപ്പോൾ ഞാൻ അടുത്തൽ നിപടെ എത്രയാണെ ഞാൻ നോക്കട്ടെ അതിന്റെ എഴുതി വെച്ചിരിക്കുന്നത് ആ വെള്ളയുണ്ട് പച്ചയുണ്ട് നല്ല മധുരമുളള ഒരു കുഴപ്പമില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല സാധനങ്ങളിറക്കാറുള്ളൂ അ ആ കൊടുത്തു വിട്ടേക്കാം

ആ മുന്തിരിയും ഓറഞ്ചും എത്രയേ കറുത്ത മുന്തിരിയുണ്ട് വെള്ള മുന്തിരിയുണ്ട് ആ രണ്ട് സൈസുണ്ട് ആ വെച്ചേക്കാം അതെന്തെങ്കിലും വേണോ മുന്തിരിയെന്തെങ്കിലും വേണോ ആ മുന്തിരി ഒരു കിലോ അല്ലേ ആ അതു കുഴപ്പമില്ല അ പാക്ക് ചെയ്ത് ആ പാക്ക് ചെയ്തു കൊടുത്തു വിടാം കേട്ടോ ആ ആ